മതസൗഹാർദ്ദം നിലവിലുള്ള ഒരു നാട്ടിലാണ് ഞാൻ ജീവിക്കുന്നത് മറ്റു മതങ്ങളെ നമ്മുടെ മതവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവരുടെ വിശ്വാസ തത്വസംഹിതകളെ നമ്മളും അംഗീകരിച്ചേ മതിയാവൂ അവർ സ്നേഹത്തിൻ്റേയും സൗഹൃദത്തിൻ്റേയും സഹോദര്യത്തിൻ്റേതുമായ ഒരു പാതയിലൂടെയുള്ള ഒരു ജീവിതമാണ് ഈ പ്രദേശത്തുള്ളവർ നയിക്കുന്നത്

വരുന്ന ആ ഒരു കാഴ്ച്ച നമ്മെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിൻ്റെ തീക്ഷണതയാണ് നമുക്ക് മനസിലാക്കുവാൻ സാധിക്കുന്നത് വളരെയധികം യാതന വേദന കഷ്ടപ്പാടുകൾ സഹിച്ച് അവർ അവിടെ നിന്നും ഇവിടേക്ക് വരികയും കൊച്ചുകുട്ടികൾ പോലും ചെരുപ്പും മറ്റുമിടാതെ പ്രായമായവരും ഒക്കെ ചെരിപ്പു പോലും ധരിക്കാതെ വെയിലത്തു നടന്ന് ശബരിമല കയറുന്ന ഒരു ആചാരം നമുക്ക് കാണുവാൻ സാധിക്കും അവയൊക്കെ നമ്മൾ എത്ര മാത്രം പ്രകീർത്തിച്ചാലും മതിയാവില്ല അതുപോലെ തന്നെ വിഷുവിനും മറ്റും അവർ നടത്തുന്ന വിഷുക്കൈനീട്ടം കൊടുക്കുക എന്നുള്ള ഒരു പതിവുണ്ട് പ്രായമായവർ കുട്ടികൾക്ക് ചെറുപ്പക്കാർക്കും മക്കൾക്കും ഒക്കെയായിട്ട് വിഷുക്കൈനീട്ടം കൊടുക്കുകയെന്നുപറഞ്ഞാ സ്നേഹത്തിൻ്റേയും സഹോദര്യത്തിൻ്റേയും സൗഹൃദത്തിൻ്റേയും വാത്സല്യത്തിൻ്റേതുമായ ഒരു പ്രതീകമാണ് അത് നമ്മളും അനുകരിക്കേണ്ട ഒരു മാർഗമാണ് ഞാനും ഞങ്ങളുടെ അടുത്തുള്ള മറ്റു മതസ്ഥരായ ആളുകൾക്കും അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കുമൊക്കെ കൈനീട്ടങ്ങൾ ഇതുപോലെ കൊടുക്കുന്നത് അവരു വളരെ അധികം സ്നേഹത്തോടുകൂടി അത് വാങ്ങിക്കുമ്പോ നമുക്ക് വരുന്ന ആ സംതൃപ്തി വളരെ വലുതാണ് ആ സംതൃപ്തി അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷകരമായ ഒരു അവസ്ഥ വിശേഷമാണ് അതുപോലെ തന്നെ മറ്റു മത മുസ്ലീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നാട്ടിൽ മുസ്ലീങ്ങൾ വളരെ സ്നേഹത്തിലും സൗഹൃദത്തിലും കഴിയുന്നുണ്ട് അവർ കടകളിൽ ഒക്കെ കടകളിൽ കച്ചവടവും ഒക്കെ നടത്തുന്നുണ്ടെങ്കിലും നമ്മളോട് വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു ലാഭമെടുത്തുകൊണ്ട് ആണവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വളരെയധികം ആളുകൾ അവരുടെ കടകളിലേക്ക് കടന്നു ചെന്നു കൊണ്ട് ഇതുപോലെ കച്ചവടം സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ഒരു അന്തരീക്ഷം സംജാതമായിട്ടുണ്ട് അതുപോലെ എത്ര തിരക്കുണ്ടെങ്കിലും വെള്ളിയാഴ്ച്ച ദിവസങ്ങളിൽ അവർ നിസ്കരിക്കുവാൻ പോവുന്ന ഒരു ചടങ്ങ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ് നമ്മള് പല കാര്യങ്ങളിലും ഉപേക്ഷ വിചാരിക്കും ദൈവത്തിനുള്ളത് പിന്നീട് ആക്കാം എന്നുവെച്ച് മാറ്റിവയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നാലും അവരെ സംബന്ധിച്ചിടത്തോളം അവരത് കൃത്യമായി പാലിക്കുന്ന ഒരു അവസ്ഥാവിശേഷം അതുപോലെ നോമ്പ് എടുക്കേണ്ട സമയങ്ങളിൽ വളരെയധികം ചിട്ടയായിട്ടു തന്നെ രാവിലെ മുതൽ ഉമിനീരു പോലും ഇറക്കാതെ വൈകുന്നേരം വരെ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം അതൊക്കെ നമ്മൾ കണ്ടു പഠിക്കേണ്ട പാഠങ്ങളാണ്